ഞാനൊരു റൂറൽ വില്ലേജേരിയേലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ വിനോദ സാധ്യതകളുള്ള ഒരു വിനോദ കേന്ദ്രങ്ങൾ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അതിന് കുട്ടികൾക്കുള്ള പാർക്ക് അങ്ങനെ ഒക്കെ ഉള്ളു വിരലിൽ എണ്ണാവുന്നതേ ഉള്ളു ഉണ്ടെങ്കിലത് കുറച്ച് ദൂരെയാണ് നമ്മളത് ട്രാവല് ചെയ്ത് പോകണ്ടി വരും അങ്ങോട്ട് അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം അതൊരു അഫൊർഡബിളായിട്ടുള്ള കാര്യമല്ല അത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഒരു പുതിയ ഒരു പദ്ധതി അല്ലങ്കിൽ വിനോദ കേന്ദ്രം നമുക്കിവിടെ ഉണ്ടാക്കിയാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം എല്ലാവർക്കും ഒരുപാട് എന്തുകൊണ്ടും എല്ലാവർക്കും ഒരു വിനോദം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ പോലെ ഉപയോഗപ്രദമായ ഒരു വിനോദകേന്ദ്രം നമ്മുടെ സ്ഥലത്തിപ്പം കുറെ സ്ഥലങ്ങളില് നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് പാർക്ക് മ്യൂസിയം അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട് സൈറ്റ് സീയിങ് അതേപോലത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്കിവിടെ അവരുടെ ആ ഒരു പാർക്ക് അതിൻ്റെ ആ ഒരു പദ്ധതിയെല്ലാം നമുക്ക് നോക്കിയിട്ട് അത് നമുക്കിവിടെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാം എന്നാണ് അതിൻ്റെ സാദ്ധ്യതകൾ വർദ്ധിപ്പിക്കാനുള്ളൊരു നിർദ്ദേശം